ഹലോ ഹലോ ആ അതെ ഹൈടെക് കമ്പ്യൂട്ടർ സെൻ്റർ ആൻഡ് ടെക്നിക് ആ പറഞ്ഞുകൊള്ളൂ അ ഓക്കേ ഓക്കേ എന്തായിരുന്നു ആ ഓക്കേ ഓക്കേ എന്തായിരുന്നു ആ ആ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ ആ ആ ആ ഓ ചുമ്മാ ഹീറ്റായിട്ട് ഷട്ട് ഡൗൺ ലാഗുണ്ടോ ലാപ്പിന് അങ്ങനെയെന്തെങ്കിലും ഭയങ്കരം ലാഗ് വരുന്നുണ്ടോ

അപ്ഡേറ്റ് എന്തെങ്കിലും അങ്ങനെയെന്തെങ്കിലും വന്നിട്ടുണ്ടോ അതോ അപ്ഡേറ്റ് ചെയ്യാൻ വല്ല കാര്യങ്ങള് എന്തെങ്കിലുമുണ്ടോയെന്ന് നോക്കിയെ ഉണ്ടോ എന്നാല് മറ്റേ സെറ്റിങ്സില് കയറിയിട്ട് സിസ്റ്റത്തിൻ്റെ സെറ്റിങ്സില് കയറിയിട്ട് ഗ്രാഫിക്സ് കാർഡ് ഒന്ന് സെർച്ച് ചെയ്തേ അതിനകത്ത് ഗ്രാഫിക്സ് കാർഡിനെന്തെങ്കിലും എന്താണ് അപ്ഡേഷൻ വന്നു കിടക്കുന്നുണ്ടോയെന്നോ അല്ലെങ്കില് അതിനകത്ത് എന്തെങ്കിലും എററോ അങ്ങനെ എന്തെങ്കിലുമുണ്ടോയെന്ന് നോക്കിയെ അഹ് ഒന്നുകില് അപ്ഡേറ്റ് ചെയ്തുകഴിയുമ്പോള് റെഡിയാകേണ്ടതാണ് ഈ പ്രശ്നം ഇല്ലെങ്കില് ഗ്രാഫിക്സ് കാർഡ് ചിലപ്പോളൊന്ന് മാറ്റേണ്ടിവരും അല്ലെങ്കില് അതിൻ്റെ ഇത് റീഇൻസ്റ്റാൾ ചെയ്യേണ്ടിവരും അത് മാറ്റാനാണെങ്കില് അത്യാവശ്യം കോസ്റ്റ് ആകും നമുക്ക് ഗ്രാഫിക്സ് ആ ഗ്രാഫിക്സ് കാർഡ് മാറ്റാനാണെങ്കില് എറൗണ്ട് ഒരു ഫൈവ് കെ ന് മുകളില് പോകും എന്തായാലും സിസ്റ്റത്തിന്റെ സ്പെക് പോലെയിരിക്കും കാര്യം അതിന്റെ ഇതുപോലെയിരിക്കും അല്ലെങ്കില് ഒന്ന് നോക്കിയെ ചിലപ്പോള് അതിൻ്റെ റീഇൻസ്റ്റാൾ അപ്ഡേറ്റ് ചെയ്യുമ്പോള് റെഡി ആകേണ്ടതാണ് ആയിട്ടില്ലെങ്കില് ചിലപ്പോള് ഗ്രാഫിക്സ് കാർഡ് മാറ്റേണ്ടിവരും ആ മാറ്റേണ്ടിവരും മാറ്റിക്കഴിഞ്ഞാലും നല്ല സാധനമൊന്നും കിട്ടണമെന്നില്ല നല്ല സാധനം വാങ്ങണം ലോക്കലൊക്കെ വാങ്ങിയിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് ഇതുപോലെ തന്നെയായിപ്പോകും സെയിം കംപ്ലൈന്റ്റ് തന്നെ വന്നിട്ട് പിന്നെയും പിന്നെയും മാറ്റേണ്ടി വരും വാങ്ങിയിടുകയാണെങ്കിൽ ഒരു എറൗണ്ട് ടെൻ കെ വരുന്ന സാധനമൊക്കെ വാങ്ങിയിട്ടുകഴിഞ്ഞാല് അത്യാവശ്യം നില്ക്കുകയൊക്കെ ചെയ്യും കമ്പനി തന്നെ വാങ്ങിയിടാം അപ്ഡേറ്റ് ചെയ്തുനോക്കൂ അപ്ഡേറ്റ് ചെയ്തുനോക്കുമ്പോള് റെഡിയാകേണ്ടതാണ് ഈ പ്രോബ്ലം അത്രയെയുണ്ടാവുകയുള്ളൂ ഗ്രാഫിക്സ് കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ചെയ്തുകഴിയുമ്പോള് റെഡിയാകേണ്ടതെയുള്ളൂ നോക്കിനോക്കൂ എന്നിട്ടും ബായ് ഇതേ ലാഗ് ആണെങ്കില് എന്താണ് ചെയ്യുക ഒന്ന് ഒന്നു കൊണ്ടുവന്നോ ഇങ്ങോട്ടു കൊണ്ടുവന്നാല് മതി ഞാൻ ഒന്ന് നോക്കിനോക്കാം ആ അപ്ഡേറ്റ് ചെയ്തൊന്ന് നോക്കിനോക്കൂ എന്താണ് അവസ്ഥയെന്ന് നോക്കിനോക്കൂ ഓക്കേ അസൂസായതുകൊണ്ട് വലിയ ഇതുവരാൻ ചാൻസില്ല അപ്ഡേറ്റില് റെഡിയാകേണ്ടതാണ് ആ അതെ അതെ ആ ഓക്കേ ഓക്കേ ഓക്കേ ശരി ബ്രോ